ഇരുപത് അഞ്ച് രണ്ടായിരത്തി രണ്ട് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് ഏഴ് രണ്ടായിരത്തി രണ്ട് എട്ട് ഒമ്പത് രണ്ടായിരത്തി അഞ്ച് നാല് ഏഴ് രണ്ടായിരത്തി ഒ ഒമ്പത്